ടൂറിസം നമ്മുടെ പരിസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടോ അവരുടെ ആ വരവ് ബാധിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഉണ്ട് കേട്ടോ ഇല്ല എന്നു പറയുന്നില്ല ഉണ്ട് കാരണം ഈ അലക്ഷ്യമായിട്ട് ഈ പ്ലാസ്റ്റിക്ക് കുപ്പികൾ വേസ്റ്റ് വലിച്ചെറിയുന്നത് നമ്മൾ ആ പിന്നെ ലക്കിടി ചുരം കയറി വരുമ്പം അവിടെ വ്യൂ പോയന്റിൽ നിർത്തിയിട്ടാൽ തന്നെ കാണാം എന്തോരം കുപ്പികളാണ് ആഹ് പിന്നെ പക്ഷെ നമ്മുടെ നാട്ടുകാർ അതിനൊരു ഒരു പഞ്ചായത്ത് തന്നെ ക്ലീനിങ്ങ് സെക്ഷൻ വച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് പോകുകയാണ് കാരണം അവിടെ മാലിന്യം കൂമ്പാരം ആക്കാതെ അതൊക്കെ അപ്പം അപ്പം എടുത്തു നീക്കി പോകുന്നതുകൊണ്ട് വലിയ ഇതൊന്നും ഇല്ല എങ്കിലും വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ് കടമയാണ് നമ്മൾ നമ്മുടെ വീട് എങ്ങനെ സൂഷിക്കുന്നോ അതേപോലെതന്നെ നമ്മുടെ നാട് നമ്മൾ പോകുന്ന സ്ഥലവും സൂക്ഷിക്കേണ്ടത് നമ്മടെ കടമയാണ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും വരും തലമുറയ്ക്ക് ഉണ്ടാകും ഒരു സാധനം നശിച്ചു പോകുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക ഉണ്ട് ഇല്ലായെന്നല്ല ഉണ്ട് ചെയ്യുന്നവരുണ്ട് ഇഷ്ടംപോലെ ഉണ്ട്